കൃഷി ആൾക്കാർ ചെയ്യുന്നുണ്ട് കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അത് ഓരോരുത്തരുടെ സാഹചര്യമാണ് കൃഷി ഇഷ്ടപെടുന്നത് കൃഷിയെ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പക്ഷേ ഒരു കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്കും ആ കൃഷിയെ നോക്കിക്കാണാൻ ഒരുപോലെ നോക്കി കാണാനായിട്ട് സാധിച്ചു എന്നു വരില്ല കാരണമെന്നാന്നു വെച്ചാൽ അവർക്ക് അവരുടെതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും അവരുടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ബാധിക്കുന്നുണ്ട് അപ്പം കൃഷിയുമായിട്ട് താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരുമാണ് കൃഷിയെ കൂടുതലും ഇഷ്ടപ്പെടുന്നതും അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും അതിൽ ഓരോരുത്തരുടെ അവ സ്വന്തം താൽപര്യം മാത്രമേ നമുക്ക് മുൻപന്തിയിൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരാളെ കൊണ്ട് നമുക്ക് നിർബന്ധിച്ച് കൃഷി ചെയ്തെ ഒക്കത്തൊള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് കൃഷി ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല ഓരോരുത്തർക്കും അവരുടെതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടല്ലോ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും കൃഷി ചെയ്യണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല കാരണം എന്നാന്നു ചോദിച്ചാൽ അത് എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല കൃഷിയെ ഇൽ ഇഷ്ടപ്പെടുന്നതും താല്പര്യപ്പെടുന്നതും അത് ചെയ്യാനായിട്ടുള്ള അറിവും ഉണ്ടെങ്കിൽ മാത്രമേ കൃഷിയെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കൃഷി നല്ലതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കൃഷി ഉപയോഗിക്കണം അതുപോലെ തന്നെ നമ്മൾ കൊറോണയൊക്കെ വന്നപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു കൃഷി ഒന് ഉണ്ട് കൃഷി ചെയ്ത് നമുക്ക് ഭക്ഷ്ണസാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു ഭക്ഷ്ണത്തിനു വേണ്ടിട്ട് നമുക്ക് വേറെ ആശ്രയിക്കേണ്ട ഒരു കാര്യം വരത്തില്ല അതുകൊണ്ട് കൃഷി എല്ലാവരും ചെയ്യണം എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഒരു വീട്ടിൽ ഒരാളെങ്കിലും കൃഷിയിൽ കൃഷി ചെയ്യണം എല്ലാവരും എല്ലാരെയും കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല അത് ഓരോരുത്തരുടെ സാഹചര്യവും ഒക്കെ നോക്കിയിട്ടായിരിക്കും ഓട് എല്ലാവരും ചെയ്യുന്നതും എടുക്കുന്നതും അപ്പം കൃഷിയെ കൂടുതലും ഇഷ്ടമുള്ളവരും അതിനോട് താല്പര്യം ഉള്ളവരും കൃഷിയിലേക്ക് ഇറങ്ങുക ഒരു വീട്ടിൽ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം നമ്മുടെ പച്ചക്കറികളും അതുപോലെ തന്നെ കപ്പ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ആവശ്യമുള്ള ഭക്ഷണസാധനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി കറികളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫല വൃക്ഷത്തൈകളാണെങ്കിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് തെങ്ങാണെങ്കിലും അതുപോലെ തന്നെ ഫലങ്ങളായിട്ട് മാമ്പഴം അതുപോലെ തന്നെ ചക്കപ്പഴം അങ്ങനെയൊക്കെ ഫലങ്ങളാണെങ്കിലും നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും കൂടുതലും ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന പച്ചക്കറികളാണെങ്കിലും ഫലങ്ങളാണെങ്കിലും അത് കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്